ആ ഹലോ ആ എൻ്റെ പേര് മറിയാമ്മ എന്നാണ് ഞാൻ ഒരു ടാബ്ലറ്റ് ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ ആയിട്ടും കിട്ടിയില്ലല്ലോ ഓഡറ് ഡേറ്റ് കഴിഞ്ഞിട്ടും കിട്ടിയിട്ടില്ല പേമെൻ്റ് എല്ലാം ചെയ്തത് ആണല്ലോ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഡിലെ ആക്കുന്നത് എന്ന് വച്ചാൽ വല്യപ്പച്ചന് വേണ്ടിയിട്ടായിരുന്നു അപ്പച്ചൻ സുഖമില്ലാതെ ഇരിക്കുന്ന ആളാണ് അപ്പോൾ കറക്റ്റ് സമയത്ത് ആ ടാബ്ലറ്റ് കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട് ഉണ്ടാകും അപ്പം ഡോക്ടറ് പ്രത്യേകം പറഞ്ഞതാണ് ആ ഓരോ ദിവസം മുടക്കാൻ പറ്റാത്ത ടാബ്ലറ്റാണ് അത് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഓഡർ ചെയ്തത് അത് ഒരു പായ്ക്കറ്റ് ആയിട്ടാണ് ഓർഡർ ചെയ്തത് ഇത് കിട്ടേണ്ട സമയം ആയപ്പോൾ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഡിലെ കാണിക്കുന്നത് പക്ഷെ കറക്റ്റ് ആയിട്ട് ഓഡർ എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഓഡറ് ഐ ഡി വന്നിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പേയ്മെൻ്റും എല്ലാം ചെയ്തിട്ടുണ്ട് കറക്റ്റ് സമയത്ത് വരുമെന്ന് വന്നെന്നും വരുന്നെന്നും പറഞ്ഞു കൊണ്ട് മെസ്സേജും വന്നിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആയിട്ടും കിട്ടിയിട്ടില്ലല്ലോ അതെന്താണ് ഇങ്ങനെ വരുന്നത് ഡിലെ ആകുന്നതിൻ്റെ കാരണം ഒന്ന് പറഞ്ഞു തരാവോ ഇനിയും ഡിലെ ആക്കാൻ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് ഒന്നും കൂടെ റീസെൻ്റ് ചെയ്യുകയോ എന്താണെന്ന് വച്ചാൽ ഒന്ന് പെട്ടെന്ന് ഒന്ന് ഇത് കാണിച്ചു തരുമോ കർറ്റ് ഡേറ്റിൻ്റെ കർറ്റ് ഇതിലാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് വരുന്ന ഡേറ്റും കാര്യങ്ങളും സമയവും എല്ലാം കൃത്യമായിട്ട് അറിയിച്ചിരുന്നു പക്ഷെ ഇങ്ങനെ ഡിലെ കാണിക്കുന്നത് എന്താണ് ഒരരു വയ്യാത്ത ഒരാൾ ആയത് കൊണ്ടാണ് ഇത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും ഈ ടാബ്ലറ്റ് വേണ്ടത് ഇത് വേറെ എങ്ങും കിട്ടാനില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ കമ്പനിയിലേക്ക് ഞങ്ങൾ ഓഡർ ചെയ്തത് കറക്റ്റ് സമയത്ത് കിട്ടുമെന്ന് ഓർത്തിട്ടല്ലേ ഓഡർ ചെയ്തത് പിന്നെ എന്താണ് ഇങ്ങനെ ഡിലെ കാണിക്കുന്നത് ഡെലിവെറി ടൈമെല്ലാം കറക്റ്റ് ആണല്ലോ ഡേറ്റും കറക്റ്റാണ് ടൈമിങ് കറക്റ്റ് ടൈമിൽ വരുമെന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ ആയിട്ടും സംഭവം കിട്ടിയിട്ടില്ലല്ലോ അത് നിങ്ങളുടെ ഓഡർ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുമോ ചെയ്യാൻ എവിടെയാണ് ഡിലേ എന്ന് വച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സാധനം കിട്ടാൻ മേണ്ടീട്ടാ ടാബ്ലറ്റ് ഓഡർ ചെയ്തത് ഓഡറ് ഐ ഡി എല്ലാം കിട്ടിയിട്ടുണ്ട് പേമെൻ്റ് കറക്റ്റ് ആണല്ലോ പിന്നെ എന്ത് കൊണ്ടാണ് ഇങ്ങനെ ഡിലെ ആക്കുന്നത് നിങ്ങൾ ഇന്ന് എൻക്വറി ഒന്ന് ചെയ്യിതിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് ഒന്ന് ഒരു മെസ്സേജ് ഒന്നു തരുമോ ഇനിയും ഡിലെ ആക്കരുത്